പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനെ ഇതിനെപ്പറ്റി ഗവേഷകർ ഗവേഷണം നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ അതിന് പ്രപഞ്ചത്തിൻ്റെ പ്രായമെത്രയാണെന്ന് ഇത് വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രപഞ്ചമെങ്ങനെയാണ് ഉണ്ടായതെന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രപഞ്ചം ജീവനെങ്ങനെയാണ് കണ്ടെത്തിയതെന്നും ഇതേവരെ ഇന്ന് കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗ്രഹങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളുണ്ടായിരുന്നതായി പറയുന്നുണ്ട് എന്നാലിപ്പോൾ എട്ട് ഗ്രഹങ്ങളേ ഉള്ളൂ എന്നും അത് തന്നെ ഗവേഷകർക്കിടയിൽ ഒരു തർക്കവിഷയമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രപഞ്ചം എങ്ങനെയാണ് ചലിക്കുന്നതെന്നോ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നോ വ്യക്തമായി പറയാനായിട്ട് ഇതുവരെയും ശാസ്ത്രഞ്ജന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഓരോ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ പരീക്ഷണങ്ങളും ഗവേഷകർ നടത്തി വരുന്നുണ്ട് എന്നാൽ ഇതിന് ഒരു വ്യക്തമായ ഒരു ക തീരുമാനങ്ങളോ വ്യക്തമായ ഒരു മറുപടിയോ ശാസ്ത്രലോകത്തിന് തരാൻ കഴിഞ്ഞിട്ട് ഇല്ല